ചിത്ര രചന ഒരു ഹോബി ആയിട്ട് കൊണ്ട് പോകുന്നതിലുള്ള അനുഭവം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് നമുക്ക് മെയ്നായിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക് അതായത് താല്പര്യം വേണം നമ്മള് എന്ത് വേണമെങ്കിലും നമുക്ക് താല്പര്യം വേണം അത് നമുക്ക് അതിപ്പോൾ ചിത്രം വരയാണെങ്കിൽ നമുക്ക് വരയ്ക്കാനുള്ള ഒരു താല്പര്യം വേണം പിന്നതുപോലെ നമുക്ക് ക്ഷമ വേണം പിന്നെല്ലാരുടേയും വീട്ടില് എല്ലാവരുടേയും സപ്പോർട്ട് വേണം ഇപ്പം നമ്മളെ പഠിപ്പിക്കാനാണെങ്കിലും അല്ലങ്കിലും നമുക്ക് ചിത്രം വരക്കാനുള്ള സാധനങ്ങള് മേടിച്ച് തരനാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് വീട്ടിലൊ വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് നിർബന്ധമാണ് അവരുണ്ടെങ്കിലെ നമ്മളും ഉള്ളൂ എന്നുള്ളൊരു മൈൻഡായിരിക്കണം നമുക്ക് അതുകൊണ്ട് തന്നെ പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് നമ്മള് ചിത്ര രചനയൊക്കെ വരക്കാനൊക്കെ നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മള് കൂടുതല് കൂടുതലായിട്ടും നമ്മള് ചിത്ര രചന ക്ലാസ്സിലൊക്കെ പോവുക ആ ചിത്ര രചന ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനും കൂടുതലായിട്ട് ഒരുപാട് പഠിക്കാൻ പറ്റും പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ലോണം വരക്കുന്നതാണെങ്കിൽ നമ്മള് ഒന്നുംകൂടെ ചിത്ര ചിത്രം ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കൂടുതലായി ഒന്നുംകൂടെ മെച്ചപ്പെടുത്താനുള്ള മെച്ചപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മള് എന്തര് എന്തര് കാര്യമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള് താത്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു പ്രാക്റ്റീസും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നടക്കും നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും